വീട്ടിൽ പാചകം ചെയ്യാൻ എൽ പി ജി സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ച് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് തുറന്ന് വിടാണ്ട് ഇരിക്കുക അതായത് ചിലപ്പം ചിലരൊക്കെ പാചകം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പം അതായത് പാചകം ചെയ്തു കഴിഞ്ഞിട്ട് ചിലപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ആക്കാനൊക്കെ മറന്ന് പോകും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ചിലവാകും എന്നുള്ളൊരു പ്രശ്നം മാത്രമേയുള്ളു പിന്നെ അല്ലാതെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ആക്കാണ്ട് പിന്നെ നമ്മൾ എന്തു ചെയ്യും പിന്നെ ഗ്യാസ് ഒന്നും ഓഫ് ആക്കാണ്ട് നമ്മൾ ചിലപ്പം പിന്നെ അതായത് നമ്മൾ ഗ്യാസ് ജസ്റ്റ് തുറന്നിട്ട് അതായത് നമ്മൾ മറ്റേ ലൈറ്റർ വെച്ച് കത്തിക്കാണ്ട് പോകാനുള്ള ഒരു സാദ്ധ്യത ഉണ്ട് ചിലപ്പം ചിലർ മറന്നൊക്കെ പോയിട്ട് അപ്പം കത്തുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളത് ഓഫാക്കാണ്ട് അപ്പുറത്തെ ഗ്യാസ് കത്തിക്കാനുള്ള ഒരു സാദ്ധ്യത ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മരണം വരെ സംഭവിക്കാനുള്ള ഒരു കാരണമാണ് അത് അപ്പം നമ്മൾ മാക്സിമം ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ദിക്കുക പിന്നെ നമ്മളുടെ ഗ്യാസിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നത് മു ൻപേ ഗ്യാസ് അടി ഓഫ് ആക്കിയിട്ട് അടിഭാഗം ഓഫ് ആക്കിയിട്ട് മാത്രം നമ്മൾ കിടക്കാൻ ശ്രമിക്കുക